ജീവികൾക്ക് തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള മാധ്യമങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത് പൊതുവായി പറഞ്ഞാൽ ഭാഷയെന്നത് ആശയവിനിമയത്തിനുള്ള ശ്രദ്ധ ശ്രദ്ധാത്മകമായ ഉപാധി എന്ന് വിവക്ഷിക്കാം മനസ്സ് ചിന്ത ഭാവന പങ്ക് വയ്ക്കൽ സംസ്കാരം ലോകബോധം ആശയവിനിമയം എന്നിങ്ങനെ ജീവിതം പൂർണമായി തന്നെ ഭാഷയുടെ ആവിഷ്കാര മണ്ഡലത്തിൽ കീഴിലാണ് സ്വാർഥകമായി തീരുന്നത് മലയാളിയുടെ മാതൃഭാഷ മലയാളമാണ് മാതൃഭാഷ എന്നത് ഒരു വ്യക്തി വ്യക്തിയും അവൻ ഉൾപ്പെടുന്ന പാരമ്പര്യ സമൂഹത്തിൻ്റെ സാധാരണ സംസാര ശൈലിയും ലിപി ഉണ്ടെങ്കിൽ അത് ഉൾപ്പെട്ടിരിക്കുന്ന അച്ചടക്ക ശൈലിയും അടങ്ങുന്നതാണ് മാതൃഭാഷ എന്നത് ജനിതകമായി പാരമ്പര്യമായി ആ വ്യക്തിയിലേക്ക് കൈമാറപ്പെടുന്ന ഭാഷയാണ് ഇവിടെ നമുക്ക് ചുറ്റുമുള്ള സമൂഹം സംസാരിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ മലയാളിയുടെ മാതൃഭാഷ മലയാളമാണ് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കുന്ന ഒന്നാണ് മാതൃഭാഷ ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുൻപേ അത് ആരംഭിക്കുന്നു എന്തുകൊണ്ടും മലയാളം പഠിക്കണം ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിലും ലക്ഷദ്വീപിലും പുതുച്ചേരിയിടെ ഭാഗമായ മജു ഡമൻലും ഇടങ്ങളിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം ഇന്ത്യയിൽ ശ്രേഷ്ഠഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം കൈരളി എന്നും മലയാളം അറിയപ്പെടുന്നു കേരളം സംസ്ഥാനത്തിന് ഭരണഭാഷയും കൂടിയാണ് മലയാളം മലയാളം അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്ട സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ആഘോഷിക്കുവാനും ആദരിക്കപ്പെടുവാനും ഒക്കെ മലയാള ഭാഷയിലൂടെ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് മലയാളം എന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മനുഷ്യ മനസ്സിനെ അവൻ്റെ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒരു ആശയ വിനിമയ ഉപാധി തന്നെയാണ് ഭാഷ പാരമ്പര്യമായി ലഭിക്കുന്ന ഭാഷ ശേഷിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും ആഘോഷങ്ങൾ നടത്തുന്നത് കൂടുതലായും ഭാഷ മലയാള ഭാഷയിൽ തന്നെയാണ് ആ ആഘോഷങ്ങൾ എത്രത്തോളം മനുഷ്യ മനസ്സിനെ ആകർഷിക്കണമെങ്കിൽ അത് മറ്റ് ഏതെങ്കിലും ഒരു ഭാഷയിൽ കൂ ടി അതിനെ നമുക്ക് വേദിയിലേക്ക് കൊണ്ടുവരുന്നതിലും നല്ലത് നമ്മുടെ മാതൃഭാഷയിലൂടെ ആ ആഘോഷത്തെ ആദരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് ആഘോഷങ്ങൾ എപ്പോഴും നമ്മുടെ മാതൃഭാഷയിലൂടെ തന്നെ നടത്തുന്നതായിരിക്കും എല്ലാ ജീവികൾക്കും അതും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്നു പറയുന്നത് സാംസ്കാരിക പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സംസ്കാരമെന്നത് കേവലം ഒരു പ്രവർത്തി മാത്രമല്ല സംസ്കാരം രാജ്യത്തിൻ്റെ നാടിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാടിൻ്റെ നമ്മുടെ ഗ്രാമത്തിൻ്റെ എല്ലാം എല്ലാ എല്ലാം കാര്യങ്ങളേയും ഉയർത്തിപ്പിടിക്കുന്നവയാണ് ഭാഷകളെന്ന് പറയുന്നത്

ഭാഷ ഭാഷയെന്നത് മൂല്യങ്ങളെ ഉയർത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് ആദരിക്കുവാനും മറ്റുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുവാനും മലയാളികൾ അവരുടെ ഭാഷ വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് മലയാള ഭാഷയെ കൈരളി എന്നും നമ്മൾ വിളിക്കാറുണ്ട് പണ്ട് കാലം മുതൽ നമ്മുടെ മലയാള ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മാതൃഭാഷ എന്നത് ഒരു വ്യക്തി ഉൾപ്പെട്ട പാരമ്പര്യ സമൂഹത്തിന് സാധാരണ സംസാര ശൈലിയാണ് മാതൃഭാഷ എന്നത് ജനിതകമായി പാരമ്പര്യമായി ആ വ്യക്തിയിലേക്ക് കൈമാറപ്പെടുന്നവയാണ് ഇവിടെ എല്ലാ ചുറ്റുപാടുകളിലും ഉള്ള മനുഷ്യൻ ഒരു സമൂഹം ഒരു കുട്ടിയെ എത്രത്തോളം ആദരിക്കുന്നതും അത് അവൻ്റെ മാതൃഭാഷയിലൂടെ തന്നെയാണ് മാതൃഭാഷയാണ് എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കിഉകയും ചെയ്യപ്പെടുന്ന ഭാഷ മാതൃഭാഷയിലൂടെ മാത്രമേ അവന് ഉയരങ്ങളിൽ എത്തുവാനും പഠിച്ചവയെ ഓർമ്മിപ്പിക്കുവാനും അവ നമ്മുടെ ശിരസ്സിലേക്ക് ആവാഹിക്കുവാനും ഓർമയിൽ നിർത്തുവാനും സാധിക്കുന്നത് മാതൃഭാഷയിലൂടെ ആണ്